ഇപ്പം മീനുകൾ വളരെ കുറവായിട്ടാണ് കാണുന്നത് ട്രോളിങ്ങ് നിരോധനം ആയതുകൊണ്ട് മീൻപിടിത്തമൊക്കെ വളരെ കുറവാണ് ഇപ്പം മീൻ അതുകൊണ്ടുതന്നെ മീനിന് നല്ല പൈസയാണ് മത്തിക്കുതന്നെ ഇരുന്നൂറ്റി അമ്പത് അങ്ങനെയൊക്കെയാണ് പോകുന്നത് അയലക്കെത്രയാണ് പൈസയെന്ന് അറിയത്തില്ല പിന്നെ കൂടുതലായിട്ടും കണ്ടു വരുന്നത് അയല മത്തി നത്തോലി അങ്ങനത്തെയൊക്കെ മീനുകളൊക്കെയാണ് പിന്നെ ആനച്ചവിട്ടി അങ്ങനത്തെ കുറെ മീനുകളൊക്കെ മീനായി കഴിഞ്ഞാൽപ്പിന്നെ കുറെ മീനുകളൊക്കെ കച്ചവടക്കാർ കൊണ്ടു വരുന്നുണ്ട് മഴക്കാലമായാൽ പിന്നെ പുഴമീനിൻ്റെ സീസൺ ആയിരിക്കും പുഴമീൻ ഒക്കെ കൊണ്ടുവരും ചെമ്പല്ലി പുഴയിൽനിന്ന് കിട്ടുന്ന കുറെ മീനുകളൊക്കെ കൊണ്ടുവരും ചെമ്പല്ലിക്കൊക്കെയാണെങ്കിൽ ഭയങ്കര പൈസയായിരിക്കും അല്ലേ വലിയ മീനാണെങ്കിൽ അതിനേക്കാളും പൈസ കൂടും എപ്പോഴും മീൻ ഇവിടെ വീട്ടിലൊന്നും തന്നെ മീനില്ലാതെ പറ്റില്ല ആർക്കും എന്നും മീൻ ഉണ്ടാവും മീനോ ചിക്കൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും കൂടുതലും മീനാണ് രാവിലെ തന്നെ മീൻ വാങ്ങിയാൽപ്പിന്നെ അത് പിന്നെ വറുക്കുകയും കറി വയ്ക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ വൈകുന്നേരം രാത്രിയത്തേക്കൊക്കെ ഉണ്ടാവും